ആ ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നതായിരുന്നു ഞാൻ എനിക്ക് അപ്പോൾ വയനാട്ടിൽ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പോ റെൻ്റിന് ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്പോർട്സ് ബൈക്ക് പോലത്തെ അപ്പോൾ ഹിമാലയയ്ക്കൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് സിക്സ് തൗസൻഡ് അല്ലേ അത് നമ്മളിപ്പോൾ അഡീഷണൽ പേ ചെയ്യണോ അതായത് നമ്മളിപ്പോൾ ആദ്യം തന്നെ അഡ്വാൻസ് നൽകണോ തരേണ്ടി വരും അല്ലേ എത്ര തരേണ്ടി വരും അപ്പം ത്രീ തൗസൻഡ് തരേണ്ടി വരും വേറെ എന്തെങ്കിലും അഡിഷണൽ ആയിട്ട് പ്രൂഫ് കാര്യങ്ങളെന്തെങ്കിലും വേണോ അത് രണ്ടും മതി അല്ലേ ഓക്കെ ആ അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഷോപ്പ് എവിടെയായിരുന്നു മാനന്തവാടിയിലാണല്ലേ ആ ആ ഓക്കെ ഓക്കെ എനിക്ക് കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ ഉണ്ട് അപ്പോൾ നമുക്ക് പുറത്തേക്ക് കോഴിക്കോടല്ലാണ്ട് നമുക്കിപ്പോൾ ബാംഗ്ലൂർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ ലിമിറ്റ് ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് പുറത്തേക്ക് എവിടെയും പോവാൻ പറ്റില്ലേ കോഴിക്കോട് പോവാം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ ഒരു ജില്ലവരെ പോവാം ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മറ്റന്നാളാണ് വരുന്നത് ഒരെണ്ണമല്ല മൂന്നെണ്ണം വേണം മൂന്ന് ഹിമാലയൻ അതായത് നമ്മൾ മൂന്ന് പേരാണ് വരുന്നത് അപ്പോൾ മൂന്ന് പേർക്കും കൂടി കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഐ ഡി കാർഡും വേണമല്ലേ മൂന്നുപേരുടെയും ആധാർ കാർഡോ ഐ ഡി കാർഡോ ഏതാണ് വേണ്ടത് ആധാർ കാർഡും ലൈസൻസും അവിടെ തരണം നിങ ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് മതിയല്ലേ ഓക്കെ ഓ ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മറ്റന്നാൾ വരുമ്പോൾ ഞാൻ വിളിക്കാം വിളിച്ചാൽ മതിയല്ലേ ഓക്കെ ഓക്കെ വണ്ടിയൊക്കെ അവൈലബിൾ അല്ലേ വണ്ടി അവൈലബിൾ അല്ലേ ആ ഓക്കെ എന്നാൽ എന്നാൽ ഞാൻ മറ്റന്നാൾ ഓക്കെ പേര് ആ പേര് ഉണ്ണി

ബാക്കി ഉള്ളവരുടെ ഞാൻ വാട്സ്ആപ്പ് ചെയ്ത് തരാം ഒരു രണ്ട് പേർ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ കൂട്ടുകാരായിരിക്കും വരുക അതുകൊണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ഓ